ഞാൻ പാട്ടു പാടാൻ അതിയായ ആഗ്രഹമുള്ള ഒരാളാണ് എന്നു കരുതി

അത് ഇഷ്ടപ്പെടുത്തണം നമ്മൾക്ക് ആ പാട്ടിനെ ഏതെങ്കിലും പാട്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ചിലവർക്ക് ഇഷ്ടമാവില്ല പക്ഷേ അത് പാടാൻ നമുക്ക് സാഹചര്യം വരികയാണെന്നുണ്ടങ്കിൽ അത് പാടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതു പാട്ട് കേട്ടു കേട്ടു കഴിഞ്ഞാലും നമ്മളത് ആദ്യം കേൾക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കണം എന്നിട്ട് അതിലെ സംഗതികളും താളങ്ങളും എല്ലാതും നമ്മൾ ഗ്രഹിക്കണം അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് നോക്കുകയാണ് എന്ത് ഫോണിൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ഉണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഫിനാൻഷ്യലി നമ്മൾ അത്ര സാമ്പത്തികമായി അത്ര നല്ല മുൻ മുൻ നിരയിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫോൺ ഉപയോഗിച്ചിട്ടും നമ്മൾക്ക് പാട്ട് എല്ലായിതും പഠിക്കാവുന്നതാണ് ഒരുപാട് വഴികൾ അതിന് ഇപ്പോൾ ഉണ്ട് നമ്മൾക്ക് ഒരുപാട് ക്ലാസുകൾ പാട്ടിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്ലാസുകൾ ഏതെങ്കിലുമൊരു ഏതെങ്കിലും ഒരു പാട്ടാണ് നമുക്ക് പാടേണ്ടത് എന്നുണ്ടെങ്കിൽ ആ പാട്ട് അടിച്ചിട്ട് അത് അതിൻ്റെ ക്ലാസ്സ് മാത്രമായിട്ട് നമുക്ക് കേൾക്കാനും സാധിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് വഴികൾ നമുക്ക് എന്താ നിൽക്കുന്നുണ്ട് പിന്നെ ബുദ്ധിമുട്ടായി തോന്നാറുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾക്ക് പാട്ടു പാടുമ്പോൾ ആ ഭാഗം കിട്ടിയില്ല എന്ന് വരും നേരെ പാടാൻ സാധിച്ചിട്ടില്ല എന്ന് വരും നല്ല താളവും സംഗതിയും ലഭിച്ചില്ല എന്നുള്ളത് വരും അത് നമ്മൾ പിന്നെയും പിന്നെയും നന്നായിട്ട് മുന്നിലേക്ക് നമ്മളായിട്ട് തന്നെ പരിശ്രമിച്ച് ഉണ്ടാക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെത്തന്നെ പിൻ നിലയിലുള്ള ആൾക്കാർക്ക് അതായത് അധികം സാമ്പത്തികമായി ഇല്ലാത്ത ആൾക്കാർക്ക് പാട്ടു പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ല അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ പാട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് എവിടേയും പരിശീലിക്കാനുള്ള സമയക്കുറവ് വരിക പിന്നെ അതേപോലെത്തന്നെ നമുക്ക് അവസരങ്ങൾ കിട്ടാതിരിക്കുക അതൊക്കെ ഇതിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്